എൻ്റെ വീട്ടിനടുത്തുള്ളൊരു ചേച്ചി നമ്മുടെ വെർജിൻ ഓയിൽ ഉണ്ടാക്കാൻ ആ അവർ തുടങ്ങി തുടങ്ങിയപ്പോൾ എല്ലാവരും അത്ര വലിയ സപ്പോർട്ടൊന്നും കൊടുത്തില്ല കാരണം എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ അതിൻ്റെ വില വെർജിൻ ഓയിലിൻ്റെ വില നല്ല വിലയാണ് സാധാരണ വെളിച്ചെണ്ണ പോലെയല്ല വിലയുള്ളത് കാരണം പലരും വാങ്ങിക്കാൻ മടിച്ചു പക്ഷേ പിന്നെ അതിൻ്റെ ഗുണാംശം പുറത്തേക്കാണ് ആദ്യം കുറേ കൊടുത്തത് നമ്മുടെ നാട്ടുകാർ വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ പുറത്തുള്ളവരായിരുന്നു വാങ്ങിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് ഏറിയപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്കും അതൊന്നു ശ്രമിക്കാം വാങ്ങിച്ചു നോക്കാമെന്നുള്ള അവസ്ഥ എത്തി അപ്പോഴാണ് അങ്ങനെ ആ ചേച്ചീടെ അടുത്തുന്നു എല്ലാവരും കുറച്ചു കുറച്ച് വാങ്ങിച്ച ശേഷം വിലയേറിയാൽ പോലും നല്ല ഗുണമേന്മയുള്ള സാധനമാണ് അതെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി തുടങ്ങി അപ്പോൾ എല്ലാവരും അത് വാങ്ങിച്ചു ഉപയോഗിച്ചു എല്ലാവർക്കും വളരെ സന്തോഷമായി ആ ഇന്ന് ആ ചേച്ചി നല്ലൊരു സംരംഭകയായിട്ട് മാറിയിട്ടുണ്ട് ഒരുപാട് പണ്ടിപ്പോൾ ഒരു രണ്ട് ലിറ്റർ മൂന്നു ലിറ്ററൊക്കെ ഉണ്ടാക്കുന്നത് പത്തും പതിനഞ്ചും ലിറ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ചേച്ചി കൊടുത്തുതുടങ്ങി അപ്പം ചേച്ചീടെ ബിസിനസും നന്നായിട്ടായി അതിൽക്കൂടെ ആ ചേച്ചിക്ക് കിട്ടുന്ന ഒരു ലാഭത്തിൻ്റെ അകത്തുനിന്ന് അവർ പല പാവങ്ങളെയും സഹായിക്കുന്നും കൂടിയുണ്ട് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി എ എല്ലാം നമ്മുടെ നാട്ടിൽ പൊതുവേയുള്ള ഒരു ഇതാണ് എന്തു സംരംഭം തുടങ്ങി കഴിഞ്ഞാലും പെട്ടെന്നൊന്നും ആളുകൾ അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കില്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല സാധനങ്ങൾ ഇത്തിരി വില കൂടിയാൽ പോലും നല്ലതാണ് നല്ല സാധനമാണ് കോളിറ്റി ഉണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് ഉപയോഗിക്കാൻ കുറച്ച് താമസമെടുക്കും അത് ഏതൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും സംരംഭം തുടങ്ങിയാലും ചില കുറെ നെഗറ്റീവ്സ്ണ്ടാവും പോസിറ്റീവ്സ്ണ്ടാവും പക്ഷേ ഇതൊക്കെ നല്ല സാധനങ്ങളാകുമ്പോൾ എല്ലാവരും വാങ്ങിക്കും അതുകൊണ്ടവരുടെ ബിസിനസും നന്നായിട്ട് വളർന്നു പോകും അപ്പോൾ അവരുടെ ആത്മാർത്ഥതയും അവർ അത് ഒന്നിലും തളരാതെ മുന്നോട്ടു പോയി നാട്ടിലുള്ളവർ പറയുന്നത് മനസ്സിലാദ്യം കേൾക്കാതെ അവർ നല്ല നല്ല വിജയത്തിലെത്താൻ വേണ്ടിയിട്ട് അവർ നല്ല വൃത്തിയിലും വെടിപ്പോട് കൂടിയും അതുണ്ടാക്കി മറ്റുള്ളവരിൽ എത്തിച്ചു അങ്ങനെയാണ് നാട്ടിലും അത് നന്നായിട്ട് നാട്ടുകാർ വാങ്ങിച്ചു തുടങ്ങിയത് അപ്പോൾ ആ ചേച്ചിൻ്റെ ക്ഷമയും അർപ്പണ ബോധവും ഒക്കെ കൊണ്ടു തന്നെയാണ് ആ ചേച്ചി വിജയിച്ചത് എന്നു തന്നെയാണ് എനിക്ക് പറയാനുള്ളത്